ആ എനിക്ക് ഒരു വീട് വേണമായിരുന്നു ഞാൻ ഇപ്പം സ്ഥലം മാറി വരുന്നത് ആയിരുന്നു അപ്പം എനിക്ക് കോഴിക്കോട് ഒരു നല്ല വീട് വേണ്ടിയിട്ട് ആയിരുന്നു റെന്റിന് അല്ല എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലൊരു സ്ഥലം നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു റെന്റിന് വേണെമെന്ന് ഇല്ല

ആ ഒരു കൊല്ലത്തേക്ക് നമുക്ക് അല്ലാണ്ട് എടുക്കാൻ പറ്റുവോ റെന്റ് ആയിട്ട് തന്നെയാണോ മതി വരും അല്ലേ എന്നാൽ ഞാൻ ഒരു കൊല്ലത്തേക്ക് റെന്റ് ആയിട്ട് എടുക്കുമ്പം എത്ര റെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ആ മ് മ് ആ അപ്പം ആ ആ അപ്പം അടുത്ത് സ്കൂളോ കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ പഠിക്കാനൊക്കെ ആയിട്ട് എൻ്റെ ഒരു മോൻ ഉണ്ട് അപ്പം അവന് പഠിക്കാൻ അടുത്ത് എവിടെയെങ്കിലും ആ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ തേർട്ടീൻ തൗസന്റ് ആണോ ഫസ്റ്റ് അല്ലേ

ഓക്കെ ഓക്കെ വീട് ഒഴിഞ്ഞ് കൊടുക്കുമ്പം റിട്ടേൺ തരും ഇപ്പം വീടിന് എന്തെങ്കിലും ഡാമേജ് കാര്യം ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ താമസിച്ചിട്ട് എന്തെങ്കിലും പറ്റുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്യാഷ് അവർ എടുക്കും അങ്ങനെ ആണോ

പേ ചെയ്യേണ്ടി വരും അല്ലേ ഓക്കെ ഓക്കെ ഇത് കറക്റ്റ് എവിടെ ആയിട്ടാണ് ടൌണിൽ തന്നെയാണോ ഇത് നമുക്ക് അതായത് ടൌണിൽ തന്നെ ആവുമ്പം ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ കുറച്ച് ഉള്ളിലേക്ക് ഒതുങ്ങിയിട്ട് ഒക്കെ ആണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു

ഓവർ അടുത്ത് വേണ്ട ഞാൻ ഇപ്പം കൊണ്ട് വിട്ടാലും കൊണ്ട് വിട്ടാലും വലിയ കുഴപ്പം ഒന്നും ഇല്ല ലേശം ഉള്ളിലേക്ക് ആണെങ്കിൽ കുഴപ്പം ഇല്ലായിരുന്നു കാരണം ടൗൺ ഒക്കെ ആവുമ്പം പിള്ളേർ ചിലപ്പം ഓടി കളിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടേ ഭയങ്കര പ്രശ്നം ആണ് അപ്പം പിള്ളേർക്കേ ആ ആ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ട് ആ അടുത്ത് വരുന്നു ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്നാൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നേ ഓ ഓക്കെ ഓക്കെ